ഹലോ ഇത് ഗ്യാസ് ഏജൻസിയല്ലേ ആ ഓക്കേ ഞാൻ വിളിച്ചതെന്താന്നു വെച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ വീട് പുതുതായി ഇങ്ങോട്ട് താമസം മാറിവന്നതാണ് കിടങ്ങറ പള്ളീടെ അടുത്തേക്ക് അപ്പം ഞങ്ങൾക്ക് ഗ്യാസ് ഇപ്പം ഇങ്ങോട്ട് വേണം വരെണ്ടത് അപ്പമൊരു പുതിയ കണക്ഷനെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതിന് എന്തൊക്കെ വേണം എന്നറിയാൻ വേണ്ടിയിട്ട്

കിടങ്ങറ ആലപ്പുഴ പള്ളീടെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന വീടാണ് പുതുതായിട്ട് വന്ന താമസക്കാരാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരെയായിരുന്നു അവിടന്നിങ്ങോട്ട് മാറിവന്നതാണ് അപ്പം നിങ്ങളുടെ ഗ്യാസ്സും ൻ്റെ വണ്ടി ഇതിലെ പോകുന്നുണ്ട് അപ്പം ഞങ്ങൾക്കും കൂടെ ഒരു കണക്ഷൻ കിട്ടും ആയിരുന്നെങ്കിൽ നല്ല സൗകര്യമായിരിക്കും കാരണം ഞങ്ങൾ യൂസ് ഞങ്ങളുടെ വേറെയൊരു കണക്ഷനായിരുന്നു പക്ഷേ അത് ആ ഡെലിവറി ഇങ്ങോട്ട് പറ്റില്ലാന്ന് അവർ പറഞ്ഞു അപ്പം ഞങ്ങൾക്കിപ്പൊരു കുറ്റി ഇവിടെ ബാക്കിയിരിപ്പുള്ളൂ അതൂടെ കഴിഞ്ഞാൽ തീരും അപ്പം എത്രയും പെട്ടന്ന് എത്രയും പെട്ടന്ന് ഞങ്ങൾക്ക് ഇവിടെ ഓർഡറ് കിട്ടുവായിരുന്നെങ്കിൽ ഡെലിവറി കിട്ടുവായിരുന്നെങ്കിൽ ഓക്കെ ആയിരിക്കും നിങ്ങൾ മാസത്തിൽ എപ്പോഴൊക്കെയാണ് ഇതിലെ വരുന്നതെന്ന് ഏത് ആഴ്ചയാണ് വരുന്നതെന്ന് പറയാമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സൗകര്യമായിരിക്കും കാരണം ഒരെണ്ണം കൂടി ഇരിപ്പുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ അടുത്തദിവസങ്ങളിൽ വല്ലതും ഇതിലെ വരുവാണെങ്കിൽ ഞങ്ങൾ പുതിയ കണക്ഷൻ വഴി സംഭവം എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളുടെ ഉപഭോക്താ ഐ ഡി ഡെലിവലി ഡെലിവറി വിലാസവും ഒക്കെ വിലാസം സെയിം തന്നെ ഞാൻ പറഞ്ഞല്ലോ പള്ളീടെ നേരെ കിടങ്ങറ പള്ളീടെ നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലത്ത് പറ്റുന്നത്രയും വേഗത്തിൽ ഞങ്ങൾക്ക് ഡെലിവറി തരുവാണെങ്കിൽ കുറച്ച് ഇതായിരുന്നേനെ ഓക്കേ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാവോ ആ ഓക്കേ ഓക്കേ അപ്പം നിങ്ങളുടെ സൈറ്റ് ഓക്കെ സൈറ്റിക്കയറി ചെയ്യാം ഓക്കേ ഓക്കേ ഓക്കേ രണ്ടാമത് ചൊവ്വാഴ്ച്ച ദിവസങ്ങളാണോ ഇതിലേ വരുന്നത് ഓക്കേ ഫൈൻ പക്ഷേ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണമായിരുന്നു അതുകൊണ്ടാണ് വിളിക്കുന്നത് ഓക്കേ ഓക്കേ ആ ഓക്കേ അപ്പ്ളൈ ചെയ്തിട്ട് വിളിക്കാം ഓക്കേ ഫൈൻ ഓക്കേ താങ്ക് യൂ താങ്ക് യൂ അപ്പോം നാ മറ്റന്നാൾ ഇതിലെ വരുവാണെങ്കിൽ ഓക്കെ മറ്റ് റൂട്ടികൂടാ പോകുന്നതെങ്കിൽ ഒരു കുറ്റി ഇവിടത്തേക്ക് തരുവാണെങ്കിൽ നന്നായിരിക്കും ഓക്കെ ഞാൻ വിളിച്ചൊന്ന് ഓർമ്മിപ്പിക്കാം ആദ്യം അപ്ലൈ ചെയ്തിട്ട് വിളിക്കാം ഓക്കെ അപ്ലൈ ചെയ്തിട്ട് വിളിക്കാം ഞാൻ ഓക്കെ ഫൈൻ